ഇപ്പോൾ കേരളത്തിലെ പൊതുവേ അങ്ങനെ എന്താ പറയുക ഒരു നിയമം ഒക്കെ പാസാക്കണം എങ്കിൽ ഇപ്പോൾ തീരുമാനമെടുക്കണം എങ്കിലും ഓരോ സംസ്ഥാനത്തിലും എല്ലാ ജനങ്ങളോടും അത് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാനോ കാര്യങ്ങൾ ഒന്നും സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതൽ ആയിട്ടും നമ്മൾ നിയമം പാസ്സാകണം എങ്കിൽ കൂടുതലായിട്ട് ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ഓരോ പഞ്ചായത്ത് ബേസിലും എന്താ പറയാ ഓരോരുത്തരെ ഓരോ ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് ഉണ്ടാകും അപ്പോൾ ഓരോ പാർട്ടി ബേസിലും ഇപ്പൊ ഓരോ കക്ഷികളെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും അപ്പോൾ അവര് വഴി നല്ല രീതിക്ക് തന്നെ കാര്യങ്ങൾ തീരുമാനങ്ങള് എടുക്കുകയും അതിനു ശേഷം അവരുമായിട്ട് കൂടിയാലോചിച്ച് ജനങ്ങളുടെ കൂട്ടത്തില് പാർട്ടിയില് അംഗങ്ങൾ ഉണ്ടാകും അവരെയൊക്കെ കൂട്ടി വിളിച്ചിരുത്തി സംസാരിച്ചതിന് ശേഷം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് എത്ര ഇതാണ് എന്നൊക്കെ നോക്കിയിട്ട് ആണ് ഓരോ നിയമങ്ങളും എന്താ പറയുക കേരളത്തിൽ സർക്കാർ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ഫുൾ ആകുന്നത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും എല്ലായിടത്തും നിയമം പാസാക്കുന്നത് എന്നാണ് എനിക്കു തോന്നുന്നത് അത് അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഒക്കെ പൊതുവേ നടക്കുന്നത് എന്നും ആണ് എൻ്റെ ഒരു തോന്നല്